ആദ്യമായിട്ട് എനിക്കു പറയാനുള്ളത് നമ്മളെല്ലാവരും എഴുതണം ഏറ്റവും കൂടുതൽ നമ്മളെ മാതൃഭാഷയിൽത്തന്നെ നമ്മള് എഴുതാൻ ശ്രമിക്കണം എഴുതുന്ന സമയത്ത് ഊർജ്ജവും ശ്രദ്ധയും നിലനിർത്താൻ ഞാൻ എന്തൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത് വളരെയധികം ഞാൻ തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം എഴുതുന്ന സമയത്ത് ഊർജ്ജയും ശ്രദ്ധയും എനിക്ക് ലഭിക്കാറില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഞാനിപ്പോൾ തിരിച്ചറിയുന്നത് ഈ എഴുതുന്ന സമയത്ത് എൻ്റെ ഊർജ്ജം ലഭിക്കാൻ ഞാനിനി എന്തു ചെയ്യണമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എഴുതുന്ന സമയത്ത് ഊര്ജം ലഭിക്കാൻ നാം മുന്പ് എഴുതിയ വസ്തുക്കൾ മുമ്പ് എഴുതിയ ഡയറികളാണെങ്കിൽ അത് ജേർണലുകളാണെങ്കിൽ അങ്ങനെ അതൊക്കെ നമുക്കു വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും എഴുതാനുള്ള ഒരു ത്വര നമ്മളിൽ സ്വാഭാവികമായി ഉണ്ടാകും എന്നാണു ഞാൻ മനസ്സിലാക്കുന്നത് മുൻപെഴുതിയ വസ്തുക്കൾ വായിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഇനിയും വീണ്ടും എഴുതണം എന്നുള്ളൊരു ആശ നമ്മുടെ മനസ്സിൽ ജനിക്കുന്ന സമയത്താണ് നമുക്കീ എഴുതുന്നതിൽ ഊർജ്ജവും ശ്രദ്ധയും നമുക്കു നിലനിർത്താൻ കഴിയുക ഇത് സൈക്കോളജിക്കലി മനശ്ശാസ്ത്രപരമായിട്ട് ഞാൻ പറഞ്ഞതാണ് എന്നാൽ നമ്മുടെ എഴുത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ നമ്മളെന്തു ചെയ്യണം നമ്മുടെ വായന അധികരിപ്പിക്കണം ഞാൻ സ്വാഭാവികമായും എന്നെക്കുറിച്ചു പറയുമ്പോൾ ഞാൻ അത്ര വായിക്കാത്ത ഒരാളാണ് അതുകൊണ്ടുതന്നെ എനിക്കു കൃത്യമായി ഭാഷ സ്ഫുടമായി എനിക്ക് അവതരിപ്പിക്കാൻ കയ്യാറില്ല ഒരാൾ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് എഴുതാനുദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ അവൻ അവൻ യഥാർത്ഥത്തിൽ അവൻ ചെയ്യേണ്ടതെന്തെന്നാൽ നല്ല രീതിയിൽ വായിക്കണം എന്നുള്ളതാണ് വായനയാണ് എഴുത്തിൻ്റെ അടിസ്ഥാനം പതിവായി ഈ ഡയറികളോ ജേണലുകളോ എയ്താറുണ്ടോ എന്നു ചോദിച്ചാൽ ഞാൻ എഴുതാറില്ല പക്ഷേ ചില സമയങ്ങളിൽ ഡയറികളെല്ലാം എഴുതാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആ എഴുതിയ ഡയറികൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കുളിരാണ് അതുപോലെ തന്നെ ഏതു ഭാഷയിലാണ് എഴുതാറുള്ളേ സ്വാഭാവികമായിട്ടു നമ്മുടെ മാതൃഭാഷയിലല്ലാതെ പിന്നെ വേറെ ഏതു ഭാഷയിൽ എഴുതാനാണു നമുക്കു പറ്റുക മാതൃഭാഷയില് എഴുതുമ്പോഴല്ലേ നമ്മുടെ ആശയങ്ങൾക്ക് ഒരു ചോരലുമില്ലാതെ നമുക്കു മറ്റുള്ളവര്ക്കു കൈമാറാൻ കഴിയൂ മറ്റുള്ള ഭാഷകള് നമ്മള് പരിഗണിക്കുന്നത് ഒരന്യഭാഷയായിട്ടല്ലേ നമ്മള്ക്കു നമ്മുടെ കാര്യങ്ങൾ പറയുന്നെങ്കിൽ നമ്മുതേ നാടൻ ശൈലിയിലത് എഴുതണം അവിടെ ശുദ്ധമലയാളമോ അവിടെ സ്റ്റാൻഡേർഡ് നോക്കിയിട്ടു കാര്യമില്ല അതാണ് എൻ്റെ അഭിപ്രായം